ഇപ്പോൾ എൻറ്റെ ഗ്രാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെയുണ്ട് അപ്പം അതിനായിട്ട് മെയിൻ ആയിട്ട് ഒരു ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ആണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് വേണ്ടത് നമുക്ക് ഇപ്പം എവിടെ പോണമെങ്കിലും ഇപ്പോൾ ഇവിടുന്ന് ഒന്ന് ടൗണിലേക്ക് ഇറങ്ങണമെങ്കിലും നമുക്ക് ക്യാഷ് കാര്യങ്ങളൊക്കെ വേണം അപ്പം ക്യാഷ് ആണ് എനിക്ക് വലുതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ്കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഇപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ നമുക്കിപ്പോൾ എറണാകുളം ആ ഭാഗത്തേക്ക് ഇവിടെ എന്തെങ്കിലും പോകണമെങ്കിൽ തന്നെ ഇവിടുന്ന് ബസിന് തന്നെ ആകും പത്തഞ്ഞൂറുവേൻറ്റ മുകളിൽ ബസിനാകും അപ്പം ഇപ്പോൾ ഇവിടുന്ന് കോഴിക്കോട് വരെ പോകണമെങ്കിൽ നൂറ്റി ഇരുപത് രൂപ നൂറ്റി മുപ്പത് രൂപൻറ്റെ അടുത്ത് വരും അപ്പോൾ നമ്മുടെ സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പല കാര്യങ്ങൾക്കും അവർ സെസ് കൊടുക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഇരുപത് രൂപ ആയിരിക്കും സെസ് അവർ എടുക്കുന്നത് അപ്പം സെസ് എടുക്കുന്നത് കൊണ്ടുതന്നെ നമുക്ക് പൈസ കൂടുതൽ അടയ്ക്കേണ്ടി വരുന്നുണ്ട് നമ്മളിപ്പോൾ കെ എസ് ആർ ടി സിയിലൊക്കെ പോവുകയാണെങ്കിൽ അവർ കൂടുതലായിട്ട് എമൗണ്ട് എടുക്കുന്നുണ്ട് അപ്പം അതൊക്കെ എനിക്കൊരു മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നിയത് ഇത്രയും ബുദ്ധിമുട്ടുകൾ ആണ് എനിക്ക് ഉണ്ടായത്